ജനിച്ച കുട്ടികൾക്ക് നമ്മൾ ആദ്യമേ ബ്രസ്റ്റ് ഫീഡിങ്ങ് ആണ് ഫുഡ് ആയിട്ട് കൊടുക്കുന്നത് ആറുമാസം വരെ അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റ് ഭക്ഷണങ്ങളിലോട്ടൊക്കെ കടക്കുന്നത് പിന്നെ അവർക്ക് അവരെ കൂടുതലായിട്ട് നമ്മൾ നോർമലി കുട്ടികളെ കെയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ ജനിച്ച ഉടനെ ആ കുട്ടികളെ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട് കൂടുതലായിട്ട് അവരെ ശ്രദ്ധിക്കണം അവരെ ചലനങ്ങളും മനസ്സിലാക്കണം ഇപ്പം സംസാരിച്ച് നമ്മളോട് ഒരു കാര്യം പറയാനായിട്ട് അവർക്ക് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ മറ്റ് ആക്ഷൻസിലൂടെയും അവരുടെ സ്മൈലിലൂടെയൊക്കെയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കണം എന്നില്ല കുറെ നാൾ ഇങ്ങനെ കണ്ടുകണ്ടായിരിക്കും അമ്മ അമ്മയിൽനിന്നായിരിക്കും കുട്ടി കൂടുതലായി ഇപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പോൾ ആദ്യ വർഷം ഒക്കെ അത്രയും കെയറ് നമ്മൾ കൊടുക്കേണ്ടിവരും ആദ്യം പിന്നെ ആറുമാസത്തിനുശേഷം ഒക്കെയാണ് കുട്ടികൾക്ക് നമ്മൾ മറ്റ് ഫുഡ് കൊടുക്കുന്നത് എരിവ് ആയാലും മറ്റ് ആഹാരങ്ങൾ കൊടുക്കുന്നത് അതുവരെ ബ്രസ്റ്റ് ഫീഡിങ്ങ് ആണ് കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത് പിന്നെ കുട്ടികളെന്താണ് അവർക്ക് ജനിച്ച ഉടനെ കുട്ടികൾക്ക് ഒന്നും പറയാനോ വേദനയോ അവർക്ക് വേദനയോ ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അത് അമ്മ തന്നെയായിരിക്കും മനസ്സിലാക്കുന്നത് അമ്മ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ് അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് അപ്പഴ് അവരുടെ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി വിശക്കുമ്പോൾ കുട്ടികൾ ഓരോ കാര്യങ്ങൾ എന്താ ഒന്നുകിൽ കരയും അങ്ങനെത്തെ കാര്യങ്ങൾ ഒക്കെയായിരിക്കും കൂടുതൽ ചെയ്യുന്നത് അതിൽനിന്ന് മനസ്സിലാക്കിയാണ് അവർക്ക് എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുതന്നെയാണ് ജനിച്ച ആദ്യകാലങ്ങളിൽ കുട്ടികൾക്കായിട്ട് ചെയ്യുന്നത്